കണ്ണൂർ ജില്ലയിലെ ഒരു പ്രശസ്തമായ ഒരു പരിസ്ഥിതി സംരംഭം അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഒരു മുൻകൈ എടുത്തൊരു വ്യക്തി എന്ന നിലയിൽ കല്ലൻ പൊക്കുടൻ എന്നു പറഞ്ഞ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം എന്നു വെച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മുടെ കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കുകയും അവ നശിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് എന്നതിനെക്കുറിച്ച് ഒരു ബോധവത്ക്കരണം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കല്ലൻ പൊക്കുടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു മലയാളിയാണ് ഒരു കണ്ണൂർക്കാരനാണ് അദ്ദേഹത്തിന് യുനെസ്കോയുടെ പാരിസ്ഥിക പ്രവർത്തന വിഭാഗം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ കൊടുത്തിരിക്കുന്ന പൊക്കുടൻ്റെ സംഭാവനകളെ പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തനം കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ പരിസ്ഥിതി പ്രവർത്തനത്തിനു തുടക്കം കുറിച്ച ഒരു വ്യക്തിയിൽ വ്യക്തികളിൽ പ്രധാനിയാണ് ഈ കല്ലൻ പൊക്കുടൻ എന്ന് പറയുന്നത് അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ ഏഴാം പഞ്ചായത്തിലെ എടക്കിയിൽ തറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ജനിച്ചത് അവിടെ തന്നെയാണ് അദ്ദേഹം എന്തെയ്യാ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു പ്രതിരോധം അദ്ദേഹം നടത്തിയത് ശരിക്കും എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തെ പ്രകൃതി വിഭവങ്ങളെയും ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കേണ്ട കടമ എന്നു പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തെയും തടയുകയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആശ്രയിച്ചു ജീവിക്കുന്ന ജനവിഭാഗങ്ങളെയും മറ്റു ജീവികളെയും ഒക്കെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം പുതിയ പുതിയ സംരംഭങ്ങൾ പരിസ്ഥിതിനെ സംരംഭം എന്താ പറയുക സംരക്ഷിക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ നമ്മളിപ്പം നമ്മളുടെ പ്രകൃതി പ്രകൃതി രമണീയത ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് വരുന്നുണ്ട് അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉത്പ്പനം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളെന്തു ചെയ്യും ഈ പ്ലസ്റ്റിക് ഉപയോഗം ഉപയോഗിച്ചതിന് ശേഷം ഇതെന്തു ചെയ്യും വലിച്ച് മണ്ണിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യും ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പ്രകൃതി വളരെ ഭംഗിയോടെ തന്നെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി തന്നെ നില നിൽക്കും അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന പുക പുകയിൽ നിന്ന് അട അടങ്ങിയ എന്താ ലെഡ് എന്നു പറഞ്ഞ അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്ഡെന്നു പറഞ്ഞ മാരകമായ വാതകം എന്തു ചെയ്യും നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ പ്രകൃതിയും വല്ലാതെ നശിപ്പിക്കുന്നത് അപ്പം നമ്മളെന്തെയ്യാ കൂടുതലും പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഈ പ്ലസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക അത് ഡിസ്പോസ് ചെയ്യാൻ ഒരുപാടിപ്പോൾ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്താ ഇപ്പം റീസൈക്കിൾ ചെയ്യാൻ പറ്റും നമുക്ക് പ്ലാസ്റ്റിക്കിനെ അപ്പം നമ്മളെന്തെയ്യാ ഇതൊന്നും വലിച്ചെറിയ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക അതിൻ്റെ അത് അതിൻ്റേതായ രീതിയിൽ അതിനെന്തെയ്യാ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത്